ഞങ്ങളുടെ ഇവിടെ ചാന്ദിനി ഉണ്ടായിരുന്നു ചാന്ദിനി ഉണ്ട് പിന്നെ ഗോപിക ഐ ആർ സിറ്റി ഗോപിക പഴയ സിനിമകളായിരുന്നു ഇപ്പോൾ അതൊക്കെ പൊളിച്ചിപ്പോൾ പുതിയ സിനിമകൾ ആക്കിയിട്ടുണ്ട് ഇവിടെ എല്ലാ സൗകര്യങ്ങളും എ സിയും നല്ല സ്ക്രീനും പിന്നെ ഒക്കെ ആയിട്ട് നല്ല തീയേറ്റർ ആയി മാ മാറ്റിയിട്ടുണ്ട് പിന്നെ പാർക്കിംഗ് സൗകര്യം കൊഴ ഉണ്ട് ഇപ്പോൾ നല്ല തീയേറ്റർ ആണ്